മൃഗങ്ങൾ വരുന്നതിനിപ്പിവടെ ഞങ്ങളിവിടെ പറ്റുക സീറ്റക്കെ കൊണ്ടു വന്ന് ആകെ വീടിന് ചുറ്റും മതിൽ മാതിരി അങ്ങനെ ചുറ്റി കെട്ടിയേക്കാണ് ഇപ്പോൾ അത് അതിൻ്റെടക്കൊക്കിങ്ങനെ വന്നിട്ട് അവർ പിന്നെയീ മൃഗങ്ങളെ കൊന്നു കൊണ്ട് പന്നികളും പിന്നെ കാര്യമായിട്ട് ആടുകളും വന്നിട്ട് ഈ കൃഷികളൊക്കെ ഒരു ആകെ പൂളൊക്കെ കുത്തിയത് അവർ അതൊക്കെ തിന്നു മാന്തി ഇട്ടു പോകും അങ്ങനെ ബുദ്ധിമുട്ട് കാരണമാണ് പിന്നെ ഞങ്ങൾ ഇങ്ങനെ ചുറ്റുഭാഗവും മതി പിന്നെ ഈ പച്ച ഷീറ്റു കൊണ്ട് കിടന്നാണ്ടിങ്ങനെ പിന്നെ മറച്ചു വെച്ച് മറച്ചത് ഇരുന്നാലും ബുദ്ധിമുട്ട് തന്നെയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഇപ്പത് ഇങ്ങാനെയാകുമ്പോൾ ഇപ്പത് ഭയങ്കര ഗതികേടു തന്നെയാണ് ഇപ്പൊരു സാധനം ഉണ്ടാക്കിയാലുണ്ടാകില്ല ഇതു പുറത്തു നിന്ന് വാങ്ങാന്നറിഞ്ഞാൽ അതൊക്കെ ഭയങ്കര വിഷമുള്ള ഓരോരോ ഇതല്ലെ നമുക്ക് വാങ്ങാങ്കിട്ടുക അതു കൊണ്ടിപ്പം ഇങ്ങനെയാകുമ്പം പുറത്തു നിന്ന് വാങ്ങാനും വയ്യാ നമ്മൾ വീട്ടിലാണെങ്കിൽ ഉണ്ടാക്കുക അതിനും വയ്യയെന്നു പറഞ്ഞ ഇതിലാണിപ്പം നിൽക്കണത് ഇഞ്ഞിപ്പത് ഇങ്ങനിപ്പത് ആയാൽ ഇപ്പത് ഒരു സാധനം നമ്മളുടെ വീട്ടിലൊന്നും ഒന്നും ഉണ്ടാക്കാനും കഴിയില്ല പിന്നിവിടെയൊന്നും കിട്ടില്ലാ എല്ലാം വിത്തറ്റ് പോകണ ഒരു ഇതാകും അവിടെ ഉണ്ടാകുക മറ്റേതെന്നു പറഞ്ഞാൽ എന്തു സാധനത്തിനും നമുക്ക് എന്ത് നമ്മൾ സ്ഥലം ഉണ്ടായാൽ നമുക്ക് കുഴിച്ചിട്ട് ഉണ്ടാക്കാനെന്നുള്ളൊരു ഇത് ഉണ്ട് അതു കൊണ്ട് ഇപ്പങ്ങനെ കെട്ടിയതു കൊണ്ട് ഇപ്പോൾ കുറച്ചക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ലേശം കുറവുണ്ട്